ബൈക്കിങ് സംഘങ്ങളുമായി ബന്ധപ്പെടുവാനും മറ്റ് ഡ്രൈവർമാരെ കണ്ടുമുട്ടാനുള്ള ഏറ്റവും നല്ല വഴികളെന്തൊക്കെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നാം നാം തന്നെ ഒരു ഗ്രൂപ്പ്കളുണ്ടാക്കുക അതായത് വാട്ട്സപ്പ് ഗ്രൂപ്പുണ്ടാക്കി നമുക്കറിയാവുന്നവരെ ആദ്യം അതിലേക്ക് ആഡ്ഡ് ചെയ്ത് റൈഡറേർസ് റൈഡീഴ്സിനേ അറിയാവുന്നവരെ ആദ്യം തന്നെ അതിലേക്ക് ആഡ്ഡ് ചെയ്ത് പിന്നെ അവർക്ക് അറിയാവുന്നവരെ അതിലേക്ക് ആഡ്ഡ് ചെയ്ത് അതുപോലെ അതും അങ്ങനെ ഒരു വലിയൊരു ചങ്ങലയായിത്തീരുകയാണെങ്കിൽ പിന്നെ അവരേക്കൂട്ടി ഒരു വലിയ റൈഡ് പോവുകയാണെങ്കിൽ നമുക്ക് റൈഡർമാരുമായിട്ട് നല്ല ഒരു ബന്ധത്തിലേർപ്പെടാൻ സാധിക്കും ഒറ്റയ്ക്ക് ബൈക്ക് ഓടിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്കോടിക്കുന്നതും ഇഷ്ടമാണ് കൂടെ ഉള്ളവരുടെ കൂടെ പോകുന്നതും വളരെയധികം ഇഷ്ടമാണ് കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പതിയെ പോയാൽ മതി അതുപോലെത്തന്നെ തന്നെയാണ് മറ്റൊരു കാര്യവും കൂടെയുള്ളവരുടെ കൂടെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് അവർക്കറിയാവുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്കറിയത്തില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമുക്ക് കടന്ന് ചെല്ലുവാനും അവിടെ അവിടങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും സാധിക്കും അത് വളരെ മികച്ച ഒരു സ്ഥലമായിരിക്കും മികച്ച ഒരു തീരുമാനമായിരിക്കും അതാണ് എനിക്കിഷ്ടം